ഹലോ എച്ച് ഡി എഫ് സി ബാങ്ക് അല്ലേ ആ ചേട്ടാ ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പം ഒരു കാറെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബി എം ഡബ്ള്യുൻ്റെ ഒരു സെവൻ സീരിസ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ടേ അപ്പം അതിന് ഏകദേശം അത്യാവശം റേറ്റൊക്കെയുണ്ട് അപ്പം ആ ഒരു ലോണിനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആനുവൽ ഇൻകം ഒരു നയൻ ലാക്ക് ഫോർട്ടി സിക്സ് തൗസൻഡ് ഉണ്ട് അപ്പം അതിനെത്ര ശതമാനം എത്ര ലോൺ കിട്ടും നമുക്ക് മാക്സിമം ആനുവൽ ഇൻകം വെച്ചിട്ട് എനിക്കൊരു ഫോർട്ടി ലാക്സ് അടുത്ത് വേണ്ടി വരും ആ അക്കൗണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഒരു മൂന്ന് ഏക്കർ ലാൻഡ് ഉണ്ട് ആ ഗോൾഡും ഇതും മുപ്പത് പവൻ നാൽപത് പവൻ ഗോൾഡ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പം അത് മൊത്തത്തിൽ വയ്ക്കണോ അതോ പകുതിയായിട്ട് ഫിഫ്റ്റി ആയിട്ട് വെച്ചാൽ മതിയോ പിന്നെ ഇൻ്ററെസ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പത്ത് പവൻ്റെ സ്വർണ്ണം നാല്പത്തിയെട്ട് അല്ലേ നാൽപത് ഫോർട്ടി ലാക്സ് കറക്റ്റ് കിട്ടുവല്ലേ ഇതിനകത്ത് പിന്നെ ഇൻ്ററസ്റ്റും റേറ്റും കാര്യങ്ങളൊക്കെ ആ ഞാന് ഓക്കെ രണ്ടാവും രണ്ട് പെർസന്റേജ് ആ മൂന്നായതുകൊണ്ടല്ലേ അപ്പം അതെങ്ങനെയാണ് മാസം അടവ് മാസം അടവാണോ ഈയൊരടവാണോ മന്ത്ലി അട ഓക്കെ എന്നിട്ട് അടയ്ക്കാം ആ പ്ലാൻ

ആ ബാങ്കിൽ എച്ച് ഡി എഫ് സിയിൽ ബാങ്കിലില്ല ഞാൻ മറ്റേ എസ് ബി ഐയിലും ഉണ്ട് മറ്റേ ഫെഡറൽ ബാങ്കിലും ഉണ്ട് ഇപ്പം എച്ച് ഡി എഫ് സിയിൽ അതവിടെ ക്രിയേറ്റ് ചെയ്താൽ പോരേ പുതിയാതൊന്ന് എടുത്താൽ പോരേ അതിന് വേറെ മ് മ് ഡീറ്റെയിൽസ് വേണം റെഡി ആവും അല്ലേ അല്ല നമ്മളിപ്പോൾ അക്കൗണ്ട് എടുത്ത ഉടനെ തന്നെ നമുക്ക് ആ ഫോർട്ടി ലാക്സ് ലോൺ അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ മാക്സിമം ലോൺ അവിടെ എത്ര വരെ കിട്ടും മാക്സിമം എത്ര ലാക്സ് വരെ കിട്ടും അൻപതിന് മേലെയേ കിട്ടുള്ളൂ ആ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ അതിന് അനുസരിച്ച് അപ്പം മാനേജരെ കാണേണ്ടി വരും അല്ലേ

ആ അതെ അല്ലേ അപ്പം ഞാനപ്പോഴത്തേക്ക് രണ്ടാഴ്ച്ച കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി എപ്പോഴത്തേക്കാണ് വരേണ്ടത് ഇന്നിപ്പോൾ എല്ലാമായി നാളെ നാളെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ ശരിയാവുമോ അല്ല ഉച്ച കഴിഞ്ഞിട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് വന്നാൽ പോരേ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വന്നാൽ പോരേ അപ്പം ഡയറക്റ്റ് മാനേജരെ പോയി കോണ്ടാക്ട് ചെയ്യണോ അതോ അവിടെ വന്ന് ചോദിച്ചാൽ മതിയോ റിസപ്ഷൻ വന്നിട്ട് ആ മ് ഓക്കെ ഓക്കെ ആ ഓക്കെ ഐ ഡി പ്രൂഫ് ആ പിന്നെ വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ആയിക്കോട്ടെ എന്നാൽ ഞാനെന്നാൽ നാളെ ഉച്ച കഴിഞ്ഞിട്ട് എത്തിയേക്കാം ആ ഓക്കെ താങ്ക്യൂ